ഇന്നത്തെ കാലത്ത് മലയാള ഭാഷ സംസാരിക്കുന്നവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് മറ്റുള്ള ലാങ്വേജ് മറ്റുള്ള ഭാഷകളുമായിട്ടുള്ള സങ്കലനങ്ങൾ തന്നെയാണ് കാരണം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇങ്ക്ളീഷ് ഭാഷ ഒരുപാട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ക്ളീഷ് പഠിച്ചത് കൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലും നമ്മൾ മലയാളം ഉപയോഗിക്കുന്നതിന് പകരം ഇംഗ്ലീഷ്ല ഭാഷയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോഴും നമ്മൾ എഴുതുമ്പോഴും അറിയാതെ നമ്മൾ മലയാളം ഉപയോഗിക്കുന്നതിന് പകരം അറിയാതെ ഇങ്ക്ളീഷ് ലാങ്വേജ് പല സമയങ്ങളിലും നമ്മൾ പോലും അറിയാതെ കയറി വരാറുണ്ട് അതുപോലെ തന്നെ ഇങ്ക്ളീഷ് മാത്രമല്ല ഇപ്പം സിനിമയൊക്കെ എടുക്കുക ആണെങ്കിൽ പോലും നമ്മൾ മലയാളികൾ ഒരുപാട് തമിഴ് സിനിമ കാണുന്നുണ്ട് പലരും ഹിന്ദി സിനിമ കാണുന്നുണ്ട് പിന്നെ ഇങ്ക്ളീഷ് ഒരുപാട് സിനിമ കാണുന്നുണ്ട് അപ്പം ഇതൊക്കെ ഒരുപാട് എക്സ്പ്ലോഷർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ലാങ്വേജ് അറിയാതെ നമ്മൾ പോലുമറിയാതെ നമ്മൾ ആ ലാങ്വേജൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇതക്കെയാണ് ഇപ്പം മലയാളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പിന്നെ പരീക്ഷകളൊക്കെ എഴുതുമ്പോഴായാലും കൂടുതലും ഇംഗ്ളീഷിലൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലും ഇങ്ക്ളീഷിന് പിന്തുണ നല്കുന്നുണ്ട് പിന്നെ പലപ്പോഴും ഒരു വേറെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഒക്കെ പോകണ്ട സാഹചര്യമുണ്ടായി കഴിഞ്ഞാൽ ഇങ്ക്ളീഷ് അറിഞ്ഞിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ക്ളീഷ് മറ്റുള്ള ഭാഷകളൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട് അതും അങ്ങനെ വരുമ്പോഴും മലയാളത്തിന് ഒരു വെല്ലുവിളി തന്നെയാണ്